ഇന്നത്തെ യുവതലമുറ അധികം വിദ്യാഭ്യാസമുള്ളവരാണ് അപ്പോഴെന്തങ്കിലും കാർഷിക രംഗത്തേക്കിറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഒരു വൈറ്റ് കോളർ ജോബാണവരോരോരുത്തരും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അധികം യുവജനങ്ങളും വിദേശങ്ങളിലേക്കെല്ലാം പോയി അവരുടെ ഭാവി സുരക്ഷിതമാക്കാനാണാഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണു നമ്മുടെ കാർഷികരംഗം ശുഷ്കമായിപ്പോകുന്നത് ഇന്ന് കാർഷകരായിട്ടധികമാൾക്കാരില്ല കൃഷി ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ് പഴയ കാലങ്ങളില് ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മുതിർന്ന ആളുകള് മാത്രമാണ് ഇന്നും കാർഷികരംഗത്ത് നിലവിലുള്ളത് യുവജനങ്ങൾ ഓരോ തൊഴിൽ തേടി വിദേശങ്ങളിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കർഷകരായിട്ടുള്ള യുവജനങ്ങളുടെ എണ്ണം ഓരോ ദിവസവും കുറഞ്ഞുവരുന്നു പിന്നെ വിളവിന് ചെലവേറെയാണ് അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുന്നില്ല അതുകൊണ്ട് ആളുകൾക്ക് വരുമാനം കുറവായതിൻ്റെ പേരിൽത്തന്നെ കൃഷിയിലേക്കിറങ്ങാനുള്ള താൽപര്യം കുറവാണ് അങ്ങനെ എല്ലാവരും വിവിധതരം തൊഴിലുകൾ തേടി അന്യ നാടുകളിലേക്ക് ചേക്കാറുവാനാണാഗ്രഹിക്കുന്നത്